ആ ഞാനേ ഞാനേ പിന്നെ ടൂറ് വരാൻ വേണ്ടിയിട്ട് പിന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു ആ നിങ്ങൾക്ക് ഓൾ കേരള പാക്കേജ് ഉണ്ടാകുമോ ഇവിടെ കേരളത്തിൾ എല്ലാ സ്ഥലത്തേക്കും ഓക്കെ ഓക്കെ അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഏഴു ദിവസത്തെ പ്ലാനാണ് ബാഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഏഴു ദിവസത്തെ പ്ലാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അക്കൊമഡേഷനും അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമോ ആ പിന്നെ അവിടുത്തെ അറേഞ്ച് ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കവിടെ ഏറ്റവും നല്ല ഫെസിലിറ്റിയുള്ള റിസോർട്ട് ഹോംസ്റ്റേകളൊക്കെയൊന്ന് ഞങ്ങൾക്ക് ഇട്ടു തരികയാണെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇടാമായിരുന്നു ഒരു പിക്കൊക്കെ ഇട്ടു തരികയാണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് പിന്നെ നമ്മുടെ പിക്കപ്പും ഇതൊക്കെയുണ്ടോ വണ്ടി നിങ്ങൾ അലൗ ചെയ്യുമോ അവിടെ നിന്ന് ഓക്കെ ഓക്കെ അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഞങ്ങൾ അടുത്ത മാസമാണ് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് ഞങ്ങൾക്കൊരു പതിനഞ്ചാം തീയ്യതി ആണ് ഞങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് പതിനഞ്ചാം തീയ്യതി നിങ്ങൾ ഞങ്ങളെ കോഴിക്കോട് എയർപോട്ടിൽ വന്ന് പിക്ക് ചെയ്താൽ മതി നമുക്ക് കോഴിക്കോട് മാത്രമല്ല ഞങ്ങൾക്ക് വേറെയും കുറച്ച് ജില്ലകൾ കവറ് ചെയ്യണം എന്നുണ്ട് മലപ്പുറം അടുത്താണല്ലോ മലപ്പുറത്തും പോകണം എന്നുണ്ട് പിന്നെ വയനാട്ടിലും കുഴപ്പമില്ല മൂന്ന് ജില്ലകളും നമുക്ക് ഒരു ഏഴ് ദിവസമുണ്ടല്ലോ കവറ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് ആ എവിടെയൊക്കെയാണ് സ്റ്റേ വയനാട്ടിൽ ഒരു ദിവസം സ്റ്റേ അതാക്കാം കോഴിക്കോട് രണ്ട് ദിവസം സ്റ്റേ മലപ്പുറത്ത് ഒരു ദിവസം സ്റ്റേ അപ്പം അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയൊന്ന് പറയുകയായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു ആ അതൊക്കെ ഓക്കെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ഫിക്സ് ചെയ്തുകൊള്ളാം നിങ്ങൾ പിന്നെ സ്റ്റേയിൻ്റെ കാര്യവും അക്കൊമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഡ്രൈവറെയും ഞങ്ങൾക്ക് വേണം ഓക്കെ ഓക്കെ അപ്പം ഞാനെന്ത് ചെയ്യാമെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്തിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിട്ടു തരാം എവിടെയാണ് അക്കൊമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ചൂസ് ചെയ്തിട്ടി ഇട് ഞങ്ങൾക്ക് ഞങ്ങളിവിടെ നിന്ന് എല്ലാവരുംകൂടി ചൂസ് ചെയ്തിട്ട് ഏതാണെന്ന് വച്ചാൽ നിങ്ങൾക്ക് ഇട്ടു തരാം അപ്പോൾ നിങ്ങൾ അവിടെത്തന്നെ ഞങ്ങൾക്ക് റൂം ബുക്ക് ചെയ്താൽ മതി പിന്നെ അടുത്ത മാസം ഡേറ്റും കാര്യങ്ങളും ഞങ്ങൾ വിളിച്ച് ഓൾറെഡി പറയാം ഓക്കെ എന്നാൽ ശരി ഞാൻ വിളിക്കാം കേട്ടോ